ഹലോ ഞാൻ കുറച്ച് മുൻപേ സ്വിഗ്ഗിയിലൊരു കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അതായത് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നേരമായി ഞാൻ അതായത് കാത്തിരിക്കുന്നു നമ്മുടെ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ രണ്ട് മണിയായി അതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ അതായത് ഫോണിൽ നോക്കിയപ്പം നിങ്ങൾ ഡെലിവറി ചെയ്തുവെന്ന് പറഞ്ഞിട്ടാണല്ലോ പിന്നേ കാണിക്കുന്നത് ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഡെലിവറി ചെയ്തുവെന്ന് കാണിക്കാൻ പറ്റുകയുള്ളു അല്ല അതുപോട്ടെ നമുക്ക് സമയത്തിന് ഫുഡ് എത്തിക്കണമെന്നുള്ള നിങ്ങ ആയ നിങ്ങളുടെയൊരു കടമയല്ലേ നമുക്ക് സമയത്തിന് ഫുഡ് എത്തിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആ സമയം കൊണ്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ച് വരേണ്ട സമയമായി നമുക്ക് കാത്തിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ അങ്ങനെയൊന്നും നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കറക്റ്റ് സമയത്ത് കി കിട്ടേണ്ട കാര്യമാണ് ആ ട്രാഫിക് ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് ട്രാഫിക് ബ്ലോക്കെന്നു പറഞ്ഞാൽ രണ്ട് മണിക്കൂർ എന്ത് ട്രാഫിക് ബ്ലോക്കാണ് അങ്ങനത്തെ എന്ത് ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഉള്ളത് എന്ത് സോറി പറഞ്ഞിട്ടും കാര്യയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡെലിവറി ലഭിച്ചുവെന്ന് പറഞ്ഞിട്ടെങ്ങനെയാണ് നിങ്ങൾ കൊടുത്തത് എൻ്റെ കൈയിൽ സാധനം എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഡെലിവറി കഴിഞ്ഞു അത് ഡെലിവറി കയ്യിലെത്തിയെന്ന് പറയാൻ പറ്റുകയുള്ളു ഓക്കെ ഇനിയിങ്ങനെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ